എനിക്ക് കൂടുതൽ ഇഷ്ടം ശേഖരീകരണ ശേഖരിക്കുന്നതിൽ നാണയങ്ങളാണ് കാരണം ഞാൻ ചെറുപ്പത്തിൽ കൂടുതൽ നാണയങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നാണയങ്ങൾ പല എൻ്റെയൊക്കെ വലിയമ്മയുടെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന കാലണ ഓട്ടക്കാലണ ചക്രം ഇങ്ങനെയുള്ള ഈ ഇവയൊക്കെ എന്താണെന്നു പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അമ്മ ഇങ്ങനെ ഓരോന്നെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയും ഇതു കാലണയാണ് ഓട്ടക്കാലണയാണ് അപ്പം അന്നേരം ഇത് ഇന്നത്തെക്കാലത്തെ ഏതു പൈസയായിട്ട് താരതമ്യം ചെയ്യുമ്പം അന്നത്തെ ഇപ്പോഴത്തെ ഉള്ള പൈസയെക്കാളും വളരെ കുറച്ച് എന്നാ വിലയാണ് ആ കാലണക്ക് ഓട്ടക്കാലണക്കൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നമ്മ പറഞ്ഞു തരും ഇപ്പം ഇന്നു കുട്ടികൾക്ക് അങ്ങനെ ഇൻ ഇൻ ഞാനപ്പം നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിലും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഒരു പൈസ രണ്ട് പൈസ അഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ ഇരുപത് പൈസ ഇങ്ങനെയുള്ള പൈസകളുണ്ട് പക്ഷെ ഇന്ന് നമ്മളുടെ ചെറുപ്പമായിരുന്നപ്പം നമുക്കറിയാവുന്നാ പൈസകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാമോ എന്നുള്ളത് സംശയമാണ് കാരണം അവരീ ഒരു പൈസയോ അല്ലെങ്കിൽ രണ്ട് പൈസയോ അഞ്ച് പൈസയൊന്നും കണ്ടിട്ടില്ല നമ്മളാരും അതിപ്പം ഒരു ശേഖരിച്ചു വെയ്ക്കാറുമില്ല വെച്ച് വളരെ ചുരുക്കം ആളുകളുടെ കയ്യിലെ ഇങ്ങനെയുള്ള നാണയങ്ങൾ കാണാൻ സാധ്യതയുള്ളു പക്ഷെ അതൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വെച്ച് ഇപ്പപ്പം എൻ്റെ വലിയമ്മ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നതു കൊണ്ടാണ് അങ്ങു പണ്ടു കാലത്തെ നാണയങ്ങൾ എന്നെ കാണിച്ചു തരാനും ഇങ്ങനെ ഇതൊക്കെയായിരുന്നു പണ്ടു കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനും സാധിച്ചത് പക്ഷെ ഇന്ന് ഉള്ള ആളുകളുടെ കയ്യിൽ തൻ്റെ തങ്ങളുടെ പിൻ തലമുറക്കാര് കാണിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെയുള്ള നാണയങ്ങളവരുടെ കൈവശം ഉണ്ടോ എന്ന് സംശയമാണ് അപ്പം അങ്ങനെയുള്ള ശേഖരണങ്ങൾ എപ്പോഴും നല്ലതാണ് കാരണം മുൻകാലങ്ങളുപയോഗിച്ചിരുന്ന വസ്തുക്കൾ നാണയങ്ങൾ സ്റ്റാമ്പുകൾ ഇതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്കതൊരു പുതുമയാണ് നമുക്കാ അമ്മകൾ കണ്ടിട്ടില്ലാത്തതല്ലേ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചറിയുമ്പോൾ നമുക്കൊരു പുതിയൊരറിവ് അതു പകർന്നു തരുവാനായിട്ട് സാധിക്കുക അത് അതിനെക്കുറിച്ച് കൂടുതൽ താല്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും പഠിക്കുവാനും ഒക്കെ കുട്ടികൾക്കും താല്പര്യമുണ്ട് പക്ഷെ അതാണ് അറിവുള്ളവർ അല്ലെങ്കിൽ പഴയ കാ പഴമയിലെ ആൾക്കാർ ഇത് തൻ്റെ അറിവുകൾ പുതിയ തറമു തലമുറയിലേക്കു കൈമാറ്റം ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പം അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള നാണയങ്ങളും സ്റ്റാമ്പുകളും ഒക്കെ പിന്നെ കല്ലുകൾ എന്നു പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ ഈ തോടുകളിൽ നിന്നൊക്കെ ഉള്ള ഒഴുകി വരുന്ന കല്ലുകളും പുഴകളിൽ നിന്നുള്ള പുഴയുടെ തീരമൊക്കെ തീരത്തൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കതൊക്കെ ലഭിക്കുവാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് പക്ഷെ അതില്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ പുഴയുടെ സമീപത്തോ അല്ലെങ്കിൽ തോടുകളുടെ സമീപത്തോ ഒന്നും അല്ല താമസിക്കുന്നത് അവർക്ക് ഇവയൊന്നും ലഭിക്കുവാനായിട്ട് സാധ്യത കുറവാണ് അപ്പം അവർ ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം കൗതുകത്തോടെ ഈ നല്ല മിനുസ്സമുള്ള ഉരുണ്ട നല്ല തിളക്കമുള്ള കല്ലുകളും ഒക്കെ കാണുമ്പോൾ വളരെയധികം കൗതുകത്തോടെ വീക്ഷിക്കുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നില നിൽക്കുന്നുണ്ട് എന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് കണ്ടിട്ടില്ലാത്ത ഇതൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത മറ്റുള്ളവർക്ക് ടെ മുന്നിൽ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവം പുതിയൊരു കാഴ്ചയൊക്കെ ആകുന്നത് വളരെയധികം നല്ലതാണ് അപ്പം നാണയങ്ങൾ സ്റ്റാമ്പുകൾ ഇവയൊക്കെ ശേഖരിക്കുകയും അവ പുതിയ തലമുറകൾക്ക് പഠിക്കുവാനും അറിയുവാനും ഒക്കെ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എത് വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇനിയുള്ള തലമുറയും ഇതേപോലെ പണ്ടു കാലത്ത് ഇന്ന് ആളുകൾക്ക് സമയമില്ല ഇതേപോലെയുള്ള ശേഖരണത്തിനോ അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുന്നതിനോ ഒന്നും സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഇതുപോലെയുള്ള ആളുകളൊറ്റവാക്കിൽ പറയും ഇങ്ങനെ മെനക്കേട് പരിപാടി എന്നു പറയും ഞങ്ങളോടൊക്കെ നാട്ടിലിത് ഇങ്ങനെ മെനക്കെടാൻ ആർക്കാണ് നേരം എന്നുള്ളൊരു സംസാര രീതിയുണ്ട് പിന്നെ മെനക്കെടാനായിട്ടാരും താല്പര്യം കാണിക്കുന്നില്ല ഇന്നെല്ലാവരും തങ്ങളുടേതായ ജീവിത വ്യഗ്രതയിൽ അല്ലെങ്കിൽ സമയമില്ലായ്മ മൂലം അവർക്ക് മറ്റുള്ള വളരെയധികം വളരെയധികം കാര്യങ്ങളുണ്ട് ഇനി ഇിന്നിപ്പോൾ എല്ലാം ഗൂഗിളിൽ സർച്ച് ചെയ്താൽ പണ്ടു കാലത്തെ നാണയങ്ങളിന്നങ്ങനെ ശേഖരിച്ച് വെച്ചു കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല ഗൂഗിളിൽ സർച്ച് ചെയ്തു കഴിഞ്ഞെന്നാൽ പഴയ കാലത്തെ നാണയങ്ങൾ എല് ഇപ്പം നിലവിലില്ലാത്ത നാണയങ്ങളെല്ലാം ഇന്നു നമുക്ക് നമ്മുടെ മുന്നിൽ ഫോണിലൂടെ അല്ലെങ്കിൽ മറ്റ് എന്നാ മറ്റും നമുക്ക് ലഭ്യമാണ് അതു കൊണ്ടു തന്നെ ഇന്നും അങ്ങനെ ശേഖരിച്ചു വെച്ച് കാണിച്ചു കൊടുക്കേണ്ടതായ ഒരവസ്ഥ ഇല്ലാത്തതു കൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് ആർക്കും അങ്ങനെയൊരു ശേഖരണവും എന്നുള്ള ഒരു മനോഭാവം ഇല്ലാതെ പോയിട്ടുണ്ട് അങ്ങനെയൊരു ശേഖരിച്ചു വെയ്ക്കുന്നൊരു മനോഭാവം ഇല്ലാത്തതു കൊണ്ടല്ലേ അങ്ങനെയൊരു ശീലമില്ലാത്തതു കൊണ്ടായിരിക്കാം ഇന്നു കുട്ടികളിൽ പോലും ഇന്ന് ഒരു സാധനം മേടിച്ചു അതു നാളെ അതു കളയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു വന്നു ചേരുന്നുണ്ട് പിന്നെ സൂക്ഷിച്ചു വെയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെയൊരു ശേഖരണവും മനോഭാ എന്നു പറഞ്ഞാൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെയ്ക്കുന്ന ആ ഒരു രീതിയൊക്കെ നമ്മളിൽ വളർത്തിയെടുക്കേണ്ടത് നല്ലതാണ് എന്ന് ഒരഭിപ്രായം കൂടി എനിക്കുണ്ട് കാരണം അങ്ങനെ ശേഖരിച്ചു നമ്മൾ കാണിച്ചു കൊടുക്കുന്നൊരു മാതൃകയാണ് പിന് തലമുറക്കാർക്കും ലഭ്യമാകുകയുള്ളു ഇന്ന് നമ്മൾ മേടിച്ചു നാളെയതു കളഞ്ഞു അപ്പം അങ്ങനെയൊരു ശേഖരിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഒട്ടും കുട്ടികളിലും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതേപോലെയുള്ള പല എന്നാ കാര്യങ്ങളും നമ്മൾ വായിക്കുകയും കാണും പണ്ടൊക്കെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ശേഖരിച്ചു വെയ്ക്കും പിന്നെ ന്ന പ് കുട്ടികളുടെയൊരു എന്റെ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു ഈ സ്പോർട്സ് പത്രങ്ങളിലൊക്കെ വരുന്നത് സ്പോർട്സ് മായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടു വരുന്നത് അതുപോലെ തന്നെ ഫുട്ബോൾ ഇങ്ങനെയുള്ള സ്പോർട്സിനോട് താ ആഭിമുഖ്യമുള്ള കുട്ടികൾ അങ്ങനെയുള്ള പേപ്പർ കട്ടിങ്സൊക്കെ ശേഖരിച്ചെടുത്തു വെയ്ക്കുന്നു പിന്നെ സിനിമ മേഹ സിനിമ ഫീൽഡുമായി കൂടുതൽ താല്പര്യം ഉള്ളവർ അങ്ങനെയുള്ള പേപ്പർ കട്ടിംഗ്സൊക്കെ ശേഖരിച്ചിരുന്നു ഇങ്ങനെ പല ശേഖരണങ്ങളും പണ്ടു മുതൽ കുട്ടികളെക്കൊണ്ട് പക്ഷെ ഇന്ന് ഇന്നത്തെ കുട്ടികളുടെ വളരെ ചുരുക്കമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെച്ച് അവ മറ്റുള്ളവർക്ക് കാണാനുള്ളൊരവസരം എൻ്റെ ചെറുപ്പത്തിൽ ഇതേ പോലെ നല്ല നല്ല ഫ്ലവേഴ്സിൻ്റെ ചിത്രം അപ്പോൾ അതുകൊണ്ടെന്താണ് ഓരോ ഫ്ലവേഴ്സിൻ്റെ പേരും അവയുടെ വ്യത് നിറങ്ങളും ഒക്കെ കുട്ടികൾക്കറിയാൻ പറ്റും ഇന്ന് ഫ്ലവറിൻ്റെ പേരുകളൊന്നും കുട്ടികൾക്കറിയത്തില്ല അങ്ങനെ ഒരു സാഹചര്യമേ അവർക്കില്ലാതെ ആയിട്ടുണ്ട് ഇങ്ങനേ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനോ അപ്പോഴൊരു ഫ്ലവറിൻ്റെ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ ചിത്രം കിട്ടിയാൽ അത് ക കട്ട് ചെയ്തെടുത്ത് നമ്മളുപയോഗിച്ച് ശ് ആവശ്യമില്ലാതെ കളയുന്ന ബുക്കുകളിലൊക്കെ ഒട്ടിച്ചു വെച്ചതിൻ്റെ അടിയിൽ പേരൊക്കെ എഴുതി വെച്ച് അപ്പം അത് മറ്റുള്ളവർക്കും കാണാൻ കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ മറ്റെന്തെങ്കിലും വസ്തുക്കളും ശേഖരിക്കാം എന്നൊരു താല്പര്യം അവർക്കും ഉണ്ടാകുകയും ഇത് എന്നാ ഓരോരുത്തർക്കും ഒരു നല്ലൊരനുഭവമാക്കിയത് കൊടുക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ശേഖരണങ്ങൾ സാധിക്കും